നമ്മുടെ ഉത്തരവാദിത്തങ്ങളോടോപ്പം തന്നെ നമ്മൾ തയ്യലിന്റെ ആ ഒരു മുഖ്യമായിട്ടുള്ള ആ ഒരു രീതി മുന്നോട്ട് കൊണ്ടുപോവാറുണ്ട് കാരണം എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ജോലികളൊക്കെ ഒതുക്കി നമ്മൾ രാവിലെ എണീറ്റ് നമ്മുടെ വീട്ടിലെ പണി ഒക്കെ തീർത്ത് മക്കളെ ഒക്കെ സ്കൂളിൽ വിട്ട് അതിന് ശേഷം ഒഴിവ് സമയങ്ങളിൽ നമ്മൾ തയ്ക്കുവേം ആ തയ്യലിന്റെ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വീ എന്തെങ്കിലും പെൻഡിങ്ങ് ജോലി ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കുവൊക്കെ ചെയ്യുന്നതാണ് തയ്യൽ നമുക്ക് ഒഴിച്ചൂകൂടാൻ പറ്റാത്തതാണ് കാരണം തയ്യൽ ഒരു സ്വയം തൊഴിലാണ് കാരണം നമ്മൾ തയ്യലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് തയ്യലിനെ സംബന്ധിച്ച് നമ്മുടെ ജോലിയോടൊപ്പം തന്നെ കാരണം നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് സമയം കൂടെ കിട്ടുമ്പോൾ നമ്മൾ അത് പ്രയോജനപ്പെടുത്തി അത് മറ്റുള്ളവർക്കും എന്നാ സഹായം ആവും നമുക്കൊരു വരുമാനവും ആവും ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ അത് എഞ്ചോയ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പോവും കാരണം സമയം നമ്മൾ കണ്ടെത്തി മുന്നോട്ട് പോകുന്നത് നമ്മൾ ഒരു കാര്യം നമുക്ക് നേടണം അല്ലെങ്കിൽ അതൊരു ലക്ഷ്യം നമ്മുടെ മനസ്സിനുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജോലിയോടൊപ്പം ഉത്തരവാദിത്തത്തോടൊപ്പം തന്നെ ഒരു സൈഡ് ആയിട്ട് അതും കൊണ്ടുപോവാനായിട്ട് നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും അത് നമ്മുടെ മനസ്സിന് ദൃഢമായിട്ടൊരു ലക്ഷ്യം നമുക്ക് ഉണ്ട് എനിക്ക് നല്ല ഇതിൽ പോവണം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കഴിഞ്ഞാൽ നല്ല ഒരു സ്വയം തൊഴിലായിട്ട് നമ്മൾ അത് കണക്കിലെടുത്ത് നമ്മുടെ ഒരു സഹായം വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിലും ഒരുപാട് നമ്മുടെ ബുദ്ധിമുട്ടിലൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു സംരംഭം കൊണ്ട് ഒരുപാട് സാധിക്കുന്നതാണ് ആ ഒരു തയ്യലിൽ ഏർപ്പെടുമ്പോൾ തയ്യൽ നമ്മുടെ കാരണം വീട്ടിലെ ജോലികളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ഉണ്ടെങ്കിലും നമുക്ക് ഇപ്പം സ്വയമായിട്ട് തൊഴിലുള്ള ജോലി ഉള്ള ആൾക്കാരൊക്കെ നമ്മൾ തയ്യലിന് എന്നുവെച്ചാൽ വീട്ടിലെ ജോലിയും ഉത്തരവാദിത്തങ്ങളെല്ലാം തീർത്ത് വെച്ചിട്ടാണല്ലോ നമ്മൾ മറ്റുള്ള ജോലിക്കൊക്കെ പോവുന്നത് അവർ അതേപോലെ തന്നെ നമുക്ക് തയ്യലിനെയും കണക്കാക്കാം കാരണം എന്നാ എന്നുവെച്ചാൽ നമ്മൾ ഒരു വീട്ടിലെ ഉത്തരവാദിത്തങ്ങളും ജോലികളൊക്കെ ചെയ്ത് വെച്ചിട്ട് തയ്യൽ എന്ന് പറയുന്ന ആ ഒരു സംരംഭം തന്നെ മുന്നോട്ട് കൊണ്ടുപോവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനായിട്ട് സമയം കണ്ടെത്തും കണ്ടെത്തി തന്നെയാണ് മുന്നോട്ട് പോവുന്നത് അതുകൊണ്ട് അതൊരു നമുക്ക് സമയം കണ്ടെത്തുന്നതിനായിട്ട് പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പോ കാര്യങ്ങളൊ ഒന്നും വേണ്ട നമ്മളാ ഒരു ഉത്തരവാദിത്തം നമുക്ക് ഉണ്ട് അത് നമ്മൾ അതിന്റെ കൂടെ തന്നെ ആ ഒരു രീതി നമ്മൾ കൊണ്ടുപോവണം എന്നുള്ള മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് സമയം കണ്ടെത്താൻ തന്നെ സാധിക്കും അതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ട് തോന്നുന്നില്ല പക്ഷേ നമുക്ക് അതിൻറെ അകത്ത് ഒരു അലസതയും അല്ലെങ്കിൽ നമുക്ക് ഒരു താൽപ്പര്യക്കുറവും വരുമ്പോളാണ് നമുക്ക് എല്ലാം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് നമുക്ക് താൽപ്പര്യമുണ്ട് നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു തൊഴിലാണെങ്കിൽ അത് നമുക്ക് ഒത്തിരി നമുക്ക് എഞ്ചോയ് ചെയ്യാനായിട്ട് സാധിക്കും അതുകൂടെ നമുക്ക് ഒരു വരുമാനവും നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ഒരു എല്ലാത്തിനും ഒരു പരിഹാരവും കാണാനായിട്ടും സാധിക്കുന്നതാണ് അതുകൊണ്ട് തയ്യലിന് ആ ഉത്തരം നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയിൽക്കൂടെ ഒപ്പം തന്നെ തയ്യൽ ജോലിയും കൊണ്ടുപോവാനായിട്ട് സാധിക്കുന്നതാണ്